എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് യോഗ ചെയ്യുന്നത് കാരണം നമ്മുടെ മെഡിറ്റേഷനാണു യോഗ നമ്മുടെ നമ്മുടെ അസുഖങ്ങൾക്ക് നമ്മുടെ മൈൻ്റിന് നമ്മുടെ ഇപ്പോൾ എത്ര ടെൻഷനുണ്ടെങ്കിലും മൈൻ്റ് റിലാക്സാവണമെങ്കിൽ മെഡിറ്റേഷൻ എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയുക ഒരിതാണ് നമുക്ക് ഒരു കാം ആവാൻ ഇപ്പോൾ പല സ്ഥലങ്ങളിലും യോഗ ചെയ്യുന്നത് യോഗ ചെയ്യുന്ന നല്ല ഇതാണ് യോഗ ചെയ്യുന്നവർക്ക് വലിയ ഒത്തിരി സന്തോഷമില്ല ഒത്തിരി സങ്കടമില്ല എല്ലാം അവരൊരു ഈക്ക്വലായിട്ടിതാക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പണ്ട് ഞങ്ങൾക്ക് സ്കൂളിലൊക്കെ യോഗ മറ്റേ ഇതാണ് പരിശീലിപ്പിക്കുമായിരുന്നു അതിന് ഓരോ ഇതുണ്ടായിരുന്നല്ലോ കുറേയൊക്കെ അറിയാമായിരുന്നു ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അതൊന്നുമില്ല പക്ഷെ എനിക്ക് ചെയ്യണം എന്നു ആഗ്രഹമുള്ള ഒരാളാണ് മെഡിറ്റേഷൻ ചെയ്യണം യോഗ ചെയ്യണം കാരണം നമ്മുടെ നമ്മുടെ മൈൻ്റെപ്പൊഴും ഒരു നോർമലായിട്ടുള്ള കണ്ടീഷനല്ല എത്ര സന്തോഷമുണ്ട് എത്ര ദുഃഖമുണ്ട് നമ്മൾ കണ്ടീഷനനുസരിച്ച് നമ്മുടെ മൈൻ്റും അബ്നോർമലായി മാറിക്കൊണ്ടേയിരിക്കും അപ്പം പിന്നെ ഏറ്റവും നല്ലൊരു മെഡിറ്റേഷൻ ഏറ്റവും നല്ലൊരു മരുന്ന് അത് എന്നു പറയുന്ന യോഗയാണ് എനിക്ക് യോഗ ചെയ്യാനിഷ്ടമാണ് ഞാൻ ധ്യാനം ചെയ്യാറുണ്ട് പിന്നെ പ്രാണയാമം അങ്ങനെ ചെയ്യാറില്ല ഇപ്പം കുറച്ചു കാലമായിട്ട് ഒരു കുറച്ച് കാലമായിട്ട് ചെയ്യാറില്ല പക്ഷെ ഇനി അത് കണ്ടിന്യൂസായിട്ട് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം എന്താ പറയുക നമ്മുടെ ജീവിതത്തിന് ഒരു പല കാര്യങ്ങളിലും മുഖ്യ പങ്ക് നമുക്ക് യോഗയ്ക്ക് കൊടുക്കാം നമ്മുടെ യോഗ ചെയ്യുമ്പം നമ്മുടെ ബോഡി ഭയങ്കര ഫ്ലെക്സിബിളാവും കേട്ടോ ഈ നമ്മൾ ഈ പിന്നെ ജിമ്മിൽ പോകുന്ന പോലെത്തന്നെ യോഗ ചെയ്യുന്നത് നല്ല ഒരു കാര്യമാണ് എല്ലാ സ്കൂളുകളിലും കുട്ടികൾക്ക് യോഗ അഭ്യസിപ്പിക്കണം എന്നാണ് എൻ്റെയൊരു അഭിപ്രായം